പതിനൊന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തിപ്പന്ത്രണ്ട് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല്